സാങ്കേതികവിദ്യ ഇന്നത്തെ കുട്ടികളെ ഒത്തിരി ഉപദ്രവകരമായി ബാധിക്കുന്നുണ്ട് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അവർ അവർ കണ്ടെത്തുന്ന അവരുടെ സുഹൃത്തുക്കൾ അവർ സംസാരിക്കുന്ന രീതികൾ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവരേറ്റവും നല്ലതെന്നു വിചാരിക്കുന്നത് പലതും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തെറ്റായി മാറുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ ഓരോ ദിവസവും അവരുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമുമൊക്കെ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവൾ അവർ കണ്ട് അവർ കാണുന്ന കാഴ്ചകൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാവും അതുകൊണ്ടുതന്നെ ഇത് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുമ്പോഴും അത് മോശമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കൊച്ചു കുട്ടികൾ ഇത് അവരുടെ ഭാവിയിലാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടാവുന്നത് തെറ്റായ സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ അതുപോലെതന്നെ എന്താണ് വിവേകം എന്നറിയുന്നതിനു മുമ്പുതന്നെ ഇതൊക്കെ ഉപയോഗിച്ച് മോശക്കാരായി പോകുന്ന കുട്ടികളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം ഈ ശ്രദ്ധയില്ലായ്മ വീട്ടുകാരുടെ ഈ ഒരു ശ്രദ്ധയില്ലായ്മയെന്ന് പലപ്പോഴും തോന്നുമെങ്കിൽപ്പോലും പക്ഷേ കുട്ടികൾ അവരവരുടെ പ്രൈവസി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത അവരെ ആവശ്യപ്പെടുമ്പോൾ അവർ സ്വരമുയർത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മുതിർന്നവർ അവിടെ ഒന്നും അല്ലാതായി പോവുകയാണ് ഇതുമായിട്ട് അവരുടെ പരിണിത ഫലങ്ങൾ എന്നു പറയുന്നത് ഇവരുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഇവരൊരു ക്രൂര മനോഭാവം സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ ഇവരൊരു ഗെയിം കളിച്ച് ഗെയിമിനോട് ഗെയിമിനോട് കീഴ്പ്പെട്ട് ജീവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു കുറ്റ കൃത്യങ്ങൾ ഇവരെ ഇവരുടെ തലയെ അല്ലെങ്കിലിവരുടെ ഇവരുടെ മാനസികമായ വളർച്ചയെ ബാധിക്കുക അല്ലെങ്കിൽ ഇവർ മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളായിട്ടുവരെ ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ട് ഇവർ കാണുന്ന ഇവർ കാണുന്ന വിവാഹജീവിതം ഒക്കെ പലപ്പോഴും വളരെ സുന്ദരമായിട്ട് ഉള്ളതായിരിക്കും ഇവരുടെ വീഡിയോസിലൊക്കെ ഇവർ കാണുന്നത് പക്ഷെ അവർ ജീവിത അനുഭവത്തിൽ ഇതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചറിയുമ്പം ഇവർക്ക് ഇതൊന്നും മീൻസ് ഇവർക്കിത് ബാധിക്കുന്നതല്ല അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരാളെ തേടിപ്പോകുന്ന ഒരു പ്രവണതയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് പലപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഇപ്പോൾ ഒരേ സമയത്ത് പല പങ്കാളികളുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ അവിഹിതമെന്നുപോലും ഇവർ സംസാരിക്കുന്നതായിട്ട് തോന്നിപ്പോകുന്നില്ല അല്ലെങ്കിലിങ്ങനെ തോന്നുന്നില്ല എപ്പോഴും ഓരോരുത്തരുടെയും ആവശ്യാനുസരണം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ അവരവരുടെ പങ്കാളികളെ കണ്ടെത്തുന്നു കളയുന്നു ആൻഡ് ഒരു ശരീരം എന്നു പറയുന്നത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അത്തരത്തിലുള്ള ഈ എന്നെ സംബന്ധിക്കും സംബന്ധിച്ചും ഇവർ ചെയ്യുന്ന ഈ ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ ഒന്നിച്ചു ജീവിക്കുന്ന സമ്പ്രദായമൊന്നും എന്നെ എന്നെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും അങ്ങ് അംഗീകരിക്കാവുന്നതല്ല അപ്പം തുടക്കം മുതൽ അവരുടെ ചിന്ത ചിന്തകളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അവർ കാണുന്ന കാഴ്ച്ചകൾ തന്നെയാണ് അവർ കണ്ടുപോകുന്ന ട്രെൻഡുകൾ ഇപ്പോൾ നിലവിലുള്ള വസ്ത്രധാരണകൾ പോലും പലപ്പോഴും വിദേശ രീതികളിലേക്ക് അല്ലെങ്കിൽ ഒരു കൊറിയൻ സ്റ്റൈലിലേക്കൊക്കെ മാറുന്നതിൻ്റെ കാരണം തന്നെയും ഈ മൊബൈൽ ഫോണ് കാരണമുള്ള അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന അപകടകരമായ ഒരു കാര്യമാണ് അപ്പം ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ എന്നു പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ഈ സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കാനുള്ള പരിശീലനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു വിവേകം വളരെ കുഞ്ഞിലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക എന്നതുള്ളതാണ് അപ്പം മാതാപിതാക്കൾക്കും ഇപ്പോഴത്തെ മാതാപിതാക്കളും ഇത്തരത്തിലുള്ള ബോധമില്ലാത്തവരും ബോധമില്ലാത്തവർ എന്നല്ല ഇത്തരത്തിലുള്ള ചിന്തകളെ ഇത്തരത്തിലുള്ള പ്രവണതകൾ അറിയാതെ പോകരുത് കാരണം മാതാപിതാക്കൾക്ക് എപ്പോഴും കുട്ടികളേക്കാളും ഉപരി ഫോണിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം അതുകൊണ്ടുതന്നെ കുട്ടികളെ നോക്കാനുള്ള സമയക്കുറവുകൊണ്ടൊക്കെ കുട്ടികൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പം അതവരുടെ സ്വഭാവ രീതിയൊ ഒത്തിരിയേറെ സ്വാധീനിക്കും അപ്പം ഇത്തരം സ്വാധീനങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തെറ്റായ ജീവിതരീതികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്നു പറയുന്ന അവരുടെ ചിന്തകളെ ഏറ്റവും മനോഹരമാക്കുക ബുക്കുകൾ വായിക്കേണമോയെന്ന് നിർബന്ധം പിടിക്കാതെ അവർ വായിച്ചോട്ടെ വായിച്ച് അവർ ഇഷ്ടമുള്ളത് വായിക്കട്ടെ പക്ഷേ അവർ കാണുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്കെപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം അപ്പം സംരക്ഷിക്കാം അതിനെ നമ്മൾ കുട്ടികളെ നമുക്ക് അവർ നാളത്തെ തലമുറയാണ് അവരൊരിക്കലും നശിക്കേണ്ടവരല്ല അവർ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വിശദമായ ആൾക്കാരോട് സംസാരിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലവരായിട്ടുതന്നെ വളരണം സാധിക്കുമെങ്കിൽ ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാതെ എല്ലാവരേയും സ്നേഹിച്ചുതന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം